ഹലോ ഇത് ഹോസ്പിറ്റൽ അല്ലേ

ഇപ്പോൾ രണ്ട് ദിവസമായി ആ ചെറുതായിട്ട് മഴ നനഞ്ഞിരുന്നു ഇപ്പോൾ ചെറിയ ജലദോഷവും ഉണ്ട് വീട്ടിൽ വേറെ ആർക്കുമില്ല എനിക്ക് മാത്രമേയുള്ളു വെള്ളം തണുത്തത് അങ്ങനെ കഴിച്ചില്ല മഴ നനഞ്ഞതെ ഉള്ളു ഇല്ല തൊണ്ട വേദനയൊന്നുമില്ല

അ ഞാനൊരു പാരസെറ്റാമോള് കഴിച്ചിരുന്നു പക്ഷേ കുറയുന്നില്ല ഇല്ല വേറെ മേല് വേദനയൊന്നും അങ്ങനെ വന്നിട്ടില്ല പനിയും ജലദോഷവും തലവേദനേയും മാത്രമേയുള്ളൂ

ഇല്ല ഇല്ല വേറെ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാന് ഒരണ്ണമേ കഴിച്ചുള്ളുവായിരുന്നു ഒറ്റ ഒരു നേരെ കഴിച്ചുള്ളു ആ ഓക്കെ മൂന്നെണ്ണം കഴിക്കണം അല്ലേ

ആ ഓക്കെ ആ അങ്ങനെയാണ് മാഡം കഴിക്കുന്നത്

ആ ഓക്കെ ആ എന്നാൽ ഞാൻ നോക്കട്ടെ ഞാൻ ഒരു മൂന്ന് കഴിഞ്ഞിട്ട് ആ കുറവില്ലെങ്കിൽ ടെസ്റ്റ് ചെയ്താൽ ആ ഓക്കെ മാഡം